തീര്ച്ചയായും അത് പ്രധാ കുട്ടികളെ മലയാളം പഠിപ്പിക്കുന്നത് പ്രധാനമായി പ്രധാനം തന്നെയാണ് കാരണം നമ്മുടെ നാ മാതൃഭാഷയ്ക്കും നമുക്ക് അതിനോടൊരു സ്നേഹം ഉണ്ടാവണം നമ്മുടെ വീട്ടിൽ നമ്മൾ മലയാളം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം പറഞ്ഞു പഠിപ്പിക്കണം നമ്മുടെ മാ നാടിന്റെ ഭാഷയാണല്ലോ മലയാളം അത് തീര്ച്ചയായും നമ്മുടെ ആ ഭാഷയോടുള്ള ആ സ്നേഹം കൂടാതെ നമ്മുടെ നാടിനോടുള്ള ആ സ്നേഹം നമ്മുടെ സംസ്കാരത്തോടുള്ള സ്നേഹം ഒക്കെയാണ് നമ്മുടെ ഭാഷ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത് ഞാന് തീര്ച്ചയായും വിശ്വസിക്കുന്നു